ഞങ്ങൾക്ക് പഞ്ചായത്ത് കിണറിലെ വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് പിന്നെ അത് പഞ്ചായത്ത് കിണർ നല്ല പിന്നെ അടപ്പൊക്കെ ഇട്ട് മൂടി നല്ല ശുദ്ധമാക്കിയ വെള്ളമാണ് ഞങ്ങളെ ടാപ്പിൽ വരുന്നത് പിന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണറുണ്ട് കുഴൽക്കിണറും കുണൽക്കിണറിലെ വെള്ളവും നല്ല വെള്ളമാണ് നല്ല ശുദ്ധിയുള്ള വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കുടിക്കാനും ഒക്കെ ആ വെള്ളം തന്നെ ഉപയോഗിക്കല് പിന്നെ പഞ്ചായത്ത് കിണറിൽ നിന്നുള്ള വെള്ളം തന്നെ നല്ല ശുദ്ധിയുള്ള നല്ല ശുദ്ധിയുള്ള വെള്ളം തന്നെയാണ് പിന്നെ നമ്മുടെ ടാപ്പിലൂടെ ടാപ്പിലൂടെ വരുന്നതും പിന്നെ ഞങ്ങൾക്ക് ദിവസവും വെള്ളം പഞ്ചായത്ത് വെള്ളം വരുന്നുണ്ട് ഞങ്ങൾ കുഴൽക്കിണറലും ഞങ്ങൾക്ക് വെള്ളം നല്ലോണമുണ്ട് പിന്നെ

പഞ്ചായത്ത് കിണർ പഞ്ചായത്ത് കിണർ എല്ലാ വർഷവും ഒക്കെ വൃത്തിയാക്കും നല്ല വെള്ളമാണ് പിന്നെ പിന്നേ ഞങ്ങൾ ടാപ്പിലൊക്കെ നല്ല നല്ല വെള്ളമാണ് വരുന്നത് നല്ല കുഴൽക്കിണറിലും നല്ല ശുദ്ധിയുള്ള വെള്ളമാണ് പിന്നെ നല്ല വെള്ളമുണ്ട് ഞങ്ങൾ ചോറ് വെക്കാനും എല്ലാ എന്തിനും എല്ലാത്തിനും ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പിന്നീട് പിന്നെ നല്ല നല്ല സഹകരണമാണ് പിന്നെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് വെള്ളം നല്ല വെള്ളം തന്നെയാണ് ഞങ്ങൾ കുഴൽക്കിണറിൽ ഞങ്ങൾ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമെല്ലാം വെള്ളമാണ് പിന്നേ

പഞ്ചായത്ത് വെള്ളം എല്ലാവർക്കും നല്ലവണ്ണം കിട്ടുന്നുണ്ട്

പിന്നീട് പിന്നെ വെള്ളം ഒരു ഒരു കലക്കവും ഒരു കുഴപ്പവുമില്ല ദിവസവും വെള്ളം വരുന്നുണ്ട് വെള്ളം നന്നായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് എല്ലാവർക്കും പിന്നെ വെള്ളം വെള്ളത്തിന് ഒരു ഒരു കുഴപ്പവും ഇല്ല നല്ല വൃത്തിയുള്ള വെള്ളമാണ്